ഹലോ ആ ഇത് ഇൻറ്റീരിയർ വർക്കെയ്യുന്ന അർച്ചനയല്ലേ ആ ഞാൻ സൂര്യ ആണ് എൻ്റെ വീടിവിടെ ആറ്റുകാൽ കഴക്കുന്നാണെ ആ ഞാനിപ്പം പുതിയതായിട്ടൊരു വീടുവെച്ചായിരുന്നു അപ്പം അതിലുള്ളൊരു വർക്കൊക്കെ നിങ്ങൾക്ക് തരാന്നാണ് വിചാരിക്കുന്നെ ഈയിടക്ക് ഇവിടൊരു പാലുകാച്ചുണ്ടായിരുന്നു നിങ്ങളാണ് അവിടുത്തെ വർക്കൊക്കെ ചെയ്തെന്നാ പറഞ്ഞത് ആ എനിക്ക് മൈനായിട്ട് ബെഡ്റൂമില് മാസ്റ്റർ ബെഡ്റൂമിലാണ് കുറച്ച് വർക്ക് ചെയ്യാനുള്ളത് അവിടെ കുറച്ചും ടി വി യൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ കർട്ടൻസ് അങ്ങനെ കുറച്ചൊക്കെ ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ കിച്ചെണിലും പിന്നെ നമ്മുടെ മുകളിൽ ബാൽക്കണി യുടെ അവിടെയൊക്കെ കുറച്ച് വർക്ക് ചെയ്യണമായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഇപ്പം പുതിയതായിട്ട് ഇറക്കിയ എന്തെങ്കിലുമൊക്കെയുണ്ടോ ആ ത്രീഡി വേണ്ട പെയിൻറ്റ് കളർ നിങ്ങൾക്കിപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും വേറെ കളറായിട്ട് ഉണ്ടോ ആ ആ അത് ചെയ്യാം

ആ അതു ഞാൻ പറയാനിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ പാലുകാച്ചലിന് പോയ വീട്ടിലും അതൊക്കെ നല്ല നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ചെയ്താൽ മതി ടി വി യുടെയൊക്കെ വയറൊന്നും കാണാതെ ചെയ്താൽ മതി ആ ഒരു ബെഡ്റൂമില് കുറച്ച് പടങ്ങളൊക്കെ വരയ്ക്കണം നല്ല പ്രകൃതിരമണീയമായിട്ടുള്ള ആ ഈ പെയിൻറ്റ് കളർസൊക്കെ എനിക്ക് കുറച്ചൊന്ന് വാട്സാപ്പ് ചെയ്തേക്കാമോ

ആ കബോർഡിൻ്റെ കാര്യം ഞാൻ വീട്ടിലൊന്ന് സംസാരിച്ചിട്ട് പറയാം ആ ആ കൂടുതൽ പിന്നെ വേറെ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പറിലോട്ട് വിളിക്കാം കേട്ടോ ആ ഒക്കെ ഓക്കെ ശരിയെന്നാൽ ആ ഒക്കെ ഓക്കെ